അതെ ആ അതെ അതെ അതെ ഇവിടെ കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല നല്ല എണ്ണയാണ് ഇവിടെത്തന്നെ ഞങ്ങള് ആ ഇവിടെ മെഷീനിൽ തന്നെ വെച്ചിട്ട് ഉണക്കീട്ട് ആട്ടി കൊടുക്കുന്നതാണ് ഇവിടത്തന്നെ അത് ആട്ടി ആ പറയൂ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കണത് പിന്ന കറികൾ ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലതാണ് പിന്നെ നമ്മള് ചെറിയ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുക തലയിൽ തേച്ച് കൊടുക്കുക പക്ഷെ നമ്മളത് കാച്ചിയ ചൂടാക്കീട്ട് തേച്ച് കൊടുത്താൽ നന്നായി മുടി ഒക്കെ വളരും നല്ലതാണ് നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണയിൽ അത്ര നല്ലത് അല്ലല്ലൊ ഇവിടെ ഞാൻ ഇവിടെത്തന്നെ മില്ലില് എല്ലാം ഉണക്കി ആട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ ഏതെങ്കിലും കെമിക്കൽ യാതൊന്നും ചേർക്കുന്നില്ല ചേർക്കാണ്ട് ഒരു വർഷം ഒര് ഒന്നര വർഷം ഒക്കെ ഞങ്ങള് ഇവിടെനിന്ന് ആട്ടി കൊടുത്ത എണ്ണയില് ഒന്നര വർഷം ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേടൊന്നും വരില്ല ഓക്കേ ബ്രെഡ് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമ്മള് എന്ത് പാചകമാ എന്ത് സാധനമാ എടുത്ത് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇത് നമ്മള് പുറത്തുനിന്ന് മേടിക്കണ എണ്ണ അത്ര നന്നായിരിക്കില്ല കെമിക്കലോട് കൂടീട്ട് ഉള്ള എണ്ണ ആയിരിക്കും കാരണം വയറുവേദനയും നീര് ഒക്കെ വരും പക്ഷെ ഇത് ആവുമ്പോൾ അത് ഒന്നും ഉണ്ടാവില്ല നല്ല എണ്ണ ആയത് കൊണ്ട് കെമിക്കൽ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം ഉപയോഗിക്കാം നന്നായിട്ട് ഉണ്ടാവും പിന്നെ കുരുമുളക് ഒക്കെ ഇത്ര ഒരു ഇത്തിരി കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കീട്ട് ഇത്തിരി ജീരകം കുരുമുളക് പിന്നെ ഇത് ഒക്കെ നമ്മള് എണ്ണയില് തിളപ്പിച്ചിട്ട് തേയ്ക്കേണ് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒക്കെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ് പിന്നെ ഇല്ല ഇല്ല മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല മുടി നന്നായി നല്ല കറുപ്പ് വിട്ട് പോവില്ല മുടി നല്ല കറുപ്പ് ഉണ്ടാവും നല്ല തിക്ക് ആയിട്ട് വളരും നമുക്ക് ഇവിടെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇവിടെനിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് നമ്മള് ആ ഇവിടെ വീട്ട് ചോദിച്ച് വാങ്ങിക്കാറുണ്ട് ആ മറ്റെ നമുക്ക് കുറെ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ അങ്ങന വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അത് ഇപ്പോൾ അവർ എങ്ങനെ ചേർത്തിട്ട് ആണ് വരുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ആട്ടുന്ന സ്ഥലത്തിൽനിന്ന് വാങ്ങിക്കുമ്പോൾ അത് നല്ല എണ്ണ തന്നെ നമുക്ക് ധൈര്യസമേതം കൊണ്ടുപോയി ഉപയോഗിക്കാം പിന്നെ അത്രയും ഇരിക്കുമല്ലോ പിന്നെ ഇത്ര

ഉപയോഗിക്കാവുന്നതാണ് ഓ ഒരു ഒന്നര വർഷം വരെ ഇരിക്കും ഉം കേട് വരാണ്ട് ഇരിക്കും നമ്മള് പിന്നെ സാധാരണ ആ എണ്ണ ഒക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ചുക്കിൻ്റ ഒരു പ്രത്യേക മണവും ഇത് ഒക്കെ വരും ഇത് അത് ഒന്നും ഇല്ല നമ്മളെ അവിടെനിന്നുതന്നെ ഫിൽറ്ററേഷൻ ചെയ്തിട്ട് ആണ് ഞങ്ങൾ ഇവിടെനിന്ന് കൊടുക്കുന്നത് ഞങ്ങള് ഇവിടെ നിന്ന് ആട്ടിയിട്ട് അപ്പോൾത്തന്നെ ഞങ്ങൾ അത് വൃത്തി ആക്കിയിട്ട് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റ കീടങ്ങൾ ഒന്നും അതിൽ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അത് കൊണ്ട് കുറെ നിങ്ങൾക്ക് ധൈര്യം ആയിട്ട് ഇരിക്കും കേട് വരില്ല മറ്റ് നമ്മള് സാധാരണ എണ്ണ ഒക്കെ മേടിക്കുമ്പോൾ കുറച്ച് നമ്മളൊരു കുപ്പിയിൽ എന്തെങ്കിലും ഒഴിച്ച് വെച്ചാൽ മണങ്ങള് മണം മാറും മണം മാറും ടേസ്റ്റ് വ്യത്യാസം ഒക്കെ വരും ഇത് ആവുമ്പോൾ അതൊന്നും വരില്ല എന്താണ് എന്നാ സാധാരണ സാധാരണ എടുത്ത് വെയ്ക്കും പോലെ വെച്ചാൽ മതി പക്ഷെ കുട്ടികൾക്ക് ഒക്കെ ഒന്ന് ചൂട് ആക്കി തേയ്ക്കാൻ കൊടുത്തു പറഞ്ഞാൽ അത്രയും നല്ലതാണ് ഇതും മാത്രമേ ഒന്ന് തിളപ്പിക്കുക രണ്ട് കുരുമുളക് കുരുമുളകിൻ്റ ഒക്കെ ഇട്ടിട്ട് രണ്ട് ജീരകം കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും കുട്ടികൾക്ക് തേക്കാൻ കൊടുക്കണ പച്ച എണ്ണ ഒക്കെ എന്തായാലും തേക്കണതേക്കാട്ടും നന്നായിരിക്കും കാച്ചിയിട്ട് തേക്കുമ്പോൾ നമ്മള് കാച്ചിയ എണ്ണ മേടിക്കുന്ന മേടിച്ചിട്ട് തേക്കണേക്കാട്ടും നല്ലത് നമ്മള് ഇവിടെനിന്ന് മേടിച്ചിട്ട് നമ്മുടെ മില്ലിൽനിന്ന് കൊണ്ട് പോയിട്ട് മേടിച്ച് തേക്കുന്ന ആൾക്കാര് ആണ് ജാസ്തി ഇവിടെ ഉള്ളത്

ഒരു ലിറ്ററ് അല്ലേ അതെ ഇതും കൊണ്ട് പോവാൻ വേണ്ടീട്ട് ആണോ ആ ശരി നിങ്ങൾ എന്തായാലും ഇത് ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ ഇപ്പോൾ നിങ്ങൾ ഒരു ലിറ്ററിന് മുകളിൽ ഓ ശരി ശരി അല്ല ഒരു ലിറ്റർ തരാം പിന്നെ നിങ്ങൾ ഇത് കൊണ്ട് പോയിട്ട് ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ച് നോക്കീട്ട് ഓ ശരി ശരി അത് ഇല്ല ഒരു ഇരുന്നൂറ്